രാസവളം ഉപയോഗിച്ചുള്ള കൃഷിയിനെക്കാട്ടും എന്തുകൊണ്ടും നല്ലത് ജൈവവളം ഉപയോഗിച്ചുള്ള കൃഷിയാണ് അതിപ്പോൾ രാസവളം ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിയാണെങ്കിൽ അതിനകത്ത് പലവിധ രോഗങ്ങളും നമുക്ക് പിടിപെടാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്നാൽ ജൈവവളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് എങ്കിൽ അതിന് രാസവളം ഉപയോഗിച്ചുള്ള കൃഷിയേക്കാൾ സ്വാദും സ്വാദും ഹെൽത്തും ഉണ്ടാവും നല്ല ആരോഗ്യം ഉണ്ടാവും ശരിക്കും ജൈവവളം ഉപയോഗിച്ചിട്ടാണ് കൂടുതലും കൃഷി ചെയ്യേണ്ടത് ജൈവവളം ഉപയോഗിച്ച് നമ്മളിപ്പോൾ ജൈവവളം ഉണ്ടാക്കാനാണെങ്കിൽത്തന്നെ നമ്മൾ വീട്ടിൽ നിന്നു കിട്ടുന്ന ജൈവം എടുത്തു മാറ്റിവയ്ക്കുക എന്നിട്ടത് പച്ചക്കറികൾക്കിടുക അങ്ങനെ നമ്മൾ ജൈവവളം ഉപയോഗിച്ചിട്ട് വേണം കൂടുതലും കൃഷി ചെയ്യാൻ രാസവളം ഉപയോഗിക്കുന്നതോടെ പലവിധ രോഗങ്ങളും നമുക്ക് വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അതേസമയം ജൈവവളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം വർദ്ധിക്കാനുള്ള ചാൻസ് കൂടുതലാണ് വർദ്ധിക്കാനുള്ള ചാൻസല്ല വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതിനെ അപേക്ഷിച്ച് രാസവളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുകയും നമുക്ക് പലവിധ രോഗങ്ങൾ പിടിപെടാനും ചാൻസുണ്ട് ജൈവവളം ഉപയോഗിച്ചാണ് കൂടുതലും കൃഷി കൃഷിയ്ക്ക് അനുയോജ്യമായതും ജൈവവളമാണ് കൂടുതൽ കൂടുതൽ കാലം ഈടുനിൽക്കണമെങ്കിൽത്തന്നെ നമുക്ക് ജൈവവളം ഉപയോഗിച്ചിട്ടുവേണം കൃഷി ചെയ്യാൻ ജൈവവളം ഇപ്പോൾ നമ്മുടെ വീടുകളിൽത്തന്നെ ഉണ്ടാക്കുന്ന വേസ്റ്റ് വേസ്റ്റ് വെള്ളം അതുപോലെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ജൈവവളം ഉണ്ട് കടയിൽ നിന്ന് നമുക്ക് രാസവളവും വാങ്ങാൻ കിട്ടും ജൈവവളമാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കേണ്ടത്